തലവേദന മാറാനായിട്ട് പൊടിക്കൈന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളി ചതച്ച് വെക്കുക പിന്നെ നിലവിൽ പണ്ടത്തെ രീതിന്ന് പറഞ്ഞാൽ നിലത്ത് വെള്ളം ഒഴിച്ചിട്ട് ഈ ഉള്ളി കണ്ടിച്ചിട്ട് നിലത്ത് ഒരച്ചിട്ട് നെറ്റിയെ പുരട്ടുവായിരുന്നു പിന്നെ തലവേദനയ്ക്ക് ചെയ്യുന്ന പച്ചമരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന ഉണ്ടാകുമ്പം അല്ലെങ്കിൽ തലവേദനയുടെ മരുന്നിനെക്കുറിച്ച് ചോദിച്ചാൽ നാടൻ രീതി എന്ന് പറയുമ്പം നമ്മൾ ഒരിക്കെ ചെയ്യുന്നത് പിന്നെ ഈ ഈ ഉള്ളി അരച്ചിടുക എന്നുള്ളതാണ് പിന്നെ നേരെ മറ്റൊരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി നനച്ച് ഓട്ടം കെട്ടി വെക്കുക അത് നനവ് ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും മാറുക മാറിയിട്ട് അങ്ങനെ നിലവിൽ വീണ്ടും അത് മാറി വീണ്ടും നനച്ച് നെറ്റിയിൽ ഇടുക അങ്ങനെയൊക്കെ തലവേദന കുറയുന്ന ഒരു രീതിയൊക്കെ നാട്ടിൽ പണ്ടൊക്കെ നമ്മൾ ചെയ്തോണ്ടിരുന്ന അങ്ങനെയൊക്കെയാണ് പിന്നെന്നാന്ന് ചോദിച്ചാൽ ഇപ്പോൾ തലവേദനകളെ നാട്ടു വൈദ്യന്മാരുടെ കുറച്ച് അല്ലെങ്കിൽ ഇപ്പം പിന്നെ എല്ലാം റെഡിമെയ്ഡായിട്ട് കൊണ്ടിരുന്നത് കൊണ്ട് ആൾക്കാർ മേടിച്ചങ്ങ് ചെയ്യും നാട്ടു വൈദ്യനാണ് വരുന്നത്തെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ മേടിച്ച് ചെയ്യുന്നുണ്ട് നിലവിൽ തലവേദനക്കിത്രെ നിലവിലിത് ഇത്രേൊക്കെ ചെയ്യേണ്ടതുള്ളു കാര്യങ്ങൾ തലവേദന എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇത് തലവേദനയടെ ഒരു നാട്ടു വൈദ്യം എന്ന് പറയുന്നത് ഇതൊക്കെയള്ളു ഉള്ളി അരച്ചിടുക പിന്നെ രണ്ട് തുള്ളി ഉപ്പ് നീറ്റലരച്ച് ഉള്ളിയേൽ അരക്കിടുക അതൊക്കെയാണ് ചെയ്യുന്നേ ഓരോ കാര്യങ്ങൾ

ഏ അതൊക്കെയാണ് ചെയ്യുന്നത് ഒരു കുറെ സമയം കഴിയുമ്പോൾ അത് ഇങ്ങനെ

ഇല്ല അത് പറഞ്ഞിട്ട് ഒരു ഏത് ഓ ആ പഴയ ചില നാട്ടു വൈദ്യങ്ങൾ ഒക്കെ അല്ലേയത് വിവരങ്ങളൊന്നും അറിയത്തില്ല എങ്കിൽ പോലും ചില നാട്ടു വൈദ്യയിൽ മാർ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ത തലവേദന ജല എന്ന് പറയുന്ന രോഗങ്ങൾ പല രീതിയിലുണ്ടാകാം പല രീതിയിലുള്ള മരുന്നുകൾ ചെയ്യാറുണ്ട് അതൊക്കെയാണ് ചെയ്യുന്നത് ഏത് ഒരു രക്ഷണം കാണുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉള്ളി ഇടുക്കുക കണ്ടിച്ച് അരച്ച് നിലത്തൊരച്ച് ഈ ചാണ മറ്റേ ഉപ്പ് നീറ്റിലരച്ചിട്ട് ഇടുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു അതൊക്കെയാണ് ഏതാണ്ട് നടത്തിക്കൊണ്ടിരുന്നത് ഇനി നാട്ടുവൈദ്യം നാട്ടു വൈദ്യം എന്ന് പറയുമ്പം ഇപ്പം പല പല രീതിയിലുള്ള നാട്ടു വൈദ്യ ആയുർവേദ മരുന്നുകളും നാട്ടു വൈദ്യന്മാരുടെ മരുന്നുകളൊക്കെ കൊണ്ടന്ന് കിടുന്ന കൊണ്ട് അതൊക്കെ മേടിച്ചാണ് ഇപ്പം നിലവിൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് നിലവിൽ അങ്ങനെ ഒരു ഉപയോഗവാണ് നമ്മൾ ചെയ്യാറ് നിലവിൽ ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശം വെച്ച് പറഞ്ഞാട്ട് കാര്യമില്ലാത്ത കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നിലവിൽ ഓരോ ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ ഉള്ള തലവേദനയാണ് വരാറ് ആ തലവേദന വരുന്നത് അനുസരിച്ച് പല ഇത് മരുന്നുകൾ പല രീതിയിലും പലർക്കും അറിയാം അത് ഞൊടി കൈകളൊക്കെ ചെയ്യാറുണ്ട് അതങ്ങനെ ചെയ്യുന്നത് നിലവിൽ നമുക്ക് അറിയത്തൊള്ളൂ ഇപ്പം ഈ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് തലവേദനയ്ക്ക ചില നാട്ടു വൈദ്യ ഗ്രാമത്തിൽ പ്രചാരത്തിലുള്ള നാട്ടുവൈദ്യം ഇതൊക്കെയാണ് തലവേദന വരുമ്പം നെറ്റിയേൽ തുണി നനച്ച് കെട്ടുക അല്ലേൽ തോർത്തെടുത്ത് തലയിൽ മുറുക്കി കെട്ടി വെക്കുന്ന അതൊക്കെ ഒരു വഴിവ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു നിലവിൽ ചില വേദന സമയത്ത് അതിന് ശമനം ഉണ്ടാകും അത് നിലവിൽ അങ്ങനെ കേട്ടും കെട്ടി വെച്ച് കഴിഞ്ഞാൽ കുറെ സമയം അങ്ങനെ അനങ്ങാതെ തല അനക്കാതെയൊക്കെ വെക്കുകാ അങ്ങനൊരു ഇതൊക്കെ ഉണ്ട് അത് ഒരു വൈദ്യൻ വൈദ്യൻ പറഞ്ഞ തന്ന രീതിയാണ് കൊറേ സമയം അങ്ങനെ കെട്ടി വെച്ചിട്ട് വലിയ അനങ്ങാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ശകലം കഴിയുമ്പോൾ അത് കുറവാകാറൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു കാരണം ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് എനിക്ക് അറിയില്ല എങ്കിലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്